ഹലോ ഇങ്ങോട്ട് വരൂ

അത് ഞാൻ ഡീറ്റൈലായ് പറഞ്ഞു തരാം എന്താ പൊസിഷൻ താങ്കളുടെ ഫോർവേഡാണല്ലേ ഇതിനു മുന്നേ എവിടെയും കോച്ചിംഗിനു പോയിട്ടില്ലല്ലോ ഓ താങ്കളുടെ വീട് എവിടെയാണ് അവിടെ തന്നെയാണോ ആ ഇവിടെ ഫുട്ബോൾ കോച്ചിം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വർക്ക്ഔട്ട് ഡയ്ലി ഉണ്ടാവും ആ സ്റ്റാമിന വർക്ക് അത് രാവിലെ ഇവിടെ ഇവിടെ രാവിലെ ആറുമണിക്ക് ക്ലാസ്സ് തുടങ്ങും അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടോ താൻ എന്തുവാ പഠിക്കണത് താൻ ഓ റിസ്ക്ക് ആണല്ലോ ഇവിടെ എട്ടര ആകുമ്പോൾ കോച്ചിംഗ് കഴിയുമ്പോൾ ഇപ്പം ആ അതിൻ്റെ ഇപ്പോൾ പോസ്സിബിൾ ആയിട്ടു വന്നിട്ടില്ല ഓ അല്ലെങ്കിൽ ഡെയ്ലി രണ്ടു ദിവസം വേണ്ടി വന്നാൽ മതി വീക്കിലി രണ്ടു ദിവസം ഇവിടെ അതു തന്നെയാണ് ഇവിടെ വീക്കിലി രണ്ടു ദിവസം വരികയെന്ന് പറഞ്ഞാൽ അവിടെ വൈകുന്നേരവും ഉണ്ടാവും ഈവനിങ്ങും ഉണ്ടാവും ഇവിടെ സ്റ്റാമിന വർക്കൌട്ട് അതുപോലെ പൊസിഷൻ കീപ്പ് ചെയ്തു കളിക്കാനുള്ള കോഴ്സ് കോച്ചിംഗ് ആ ഫുട്ബാളിൻ്റെ കുറച്ച് നല്ല കോച്ചിംഗുകാണ് എന്റെ എല്ലാം ഉണ്ടാകും ഇവിടെ പ്രൊവൈഡ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അക്കാദമി തുടങ്ങിയിട്ട് ഇപ്പോൾ ഫുട്ബോൾ കോച്ചിംഗ് അക്കാദമി തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടുമാസം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ സ്പോൺസേർഴ്സ് ആരും ഇല്ല ഇതിനു മുന്നേ സ്പോൺസേർസ് വന്നപ്പോൾ എല്ലാവർക്കും കിറ്റും കാര്യങ്ങളുമൊക്കെ കൊടുത്തു ഇപ്പോൾ നമ്മൾ സ്വയം ആയിട്ട് ഇപ്പോ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും പൈസ ഇവിടെ മാസം വരിക പറഞ്ഞാൽ അഞ്ഞൂറ് അപ്പോൾ നിങ്ങൾ വീക്കിലി രണ്ടു ദിവസത്തെ വരിക പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് തന്നാൾ മതി എന്താ പറഞ്ഞാൽ ഇപ്പം വീക്കിലി രണ്ടു ദിവസമല്ലേ വരുന്നുള്ളു അപ്പോൾ ഡെയ്ലി താങ്കൾ വന്നാൽ മതിയല്ലേ ഈവെനിംഗോ അല്ലെങ്കിൽ മോർണിങ്ങോ വന്നാൽ മതി തൻ്റെ തൻ്റെ എന്താണ് ചോയ്സ് ഈവനിംഗ് വരണോ മോർണിംഗ് വരണോയെന്ന് തൻ്റെ ചോയിസാണ് താൻ തീരുമാനിക്കാം നമ്മുടെയെല്ലാം ചെയ്യാം ഇവിടെ അഡ്മിഷൻ ഫീസ് പറഞ്ഞിട്ട് ആയിരം ഉറുപ്പിക വരും തുടക്കം തന്നെ അഡ്മിഷൻ ഫീസ് ആയിരം വരും അതുപോലെ പിന്നെ കോച്ചിംഗിൻ്റെ അഞ്ഞൂറ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ ആ ബൈ